ഇപ്പം കുടുംബപരമായിട്ട് ഇപ്പം അച്ഛനും അമ്മയും പിന്നെ അച്ഛച്ചൻ അങ്ങനെയുള്ളവരൊക്കെ കൃഷിയിലേർപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ കൊച്ചുമക്കള് അല്ലെങ്കിൽ അവരുടെ മക്കള് അതിലേർപ്പെടാൻ താല്പര്യം കുറവ് കാണിക്കും കാരണമെന്താണ് അവർക്ക് കഷ്ടപ്പെടാനാവില്ല പക്ഷെ അതായത് ചിലവരൊക്കെ ആ പാരമ്പര്യം കാത്തുകൊള്ളുന്നവരുണ്ട് ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല ചിലപ്പോൾ നഷ്ടമായിരിക്കും പക്ഷേ അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ അതായത് നഷ്ടം സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കൂടുതലും കൃഷിയിലൊന്നും ഏർപ്പെടാണ്ടിരിക്കുന്നത് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതൊക്കെ അതൊക്കെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറെ ആൾക്കാരൊന്നും അതില് പിന്നെ ഇതാവാൻ താല്പര്യപ്പെടുന്നില്ല അവര് പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് അങ്ങനെ നോക്കി പോകുന്നവരാണ് ഒരുപാട് പേര് സ്വന്തം അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും അതിനൊന്നും ഒരു വില കൽപ്പിക്കാതെ കൃഷിയിലേക്കൊന്നും ഇറങ്ങാതെ അതായത് അവരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയുടെ പ്രാധാന്യം അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയുക കൃഷിയുടെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം നമ്മൾ നമ്മളിപ്പോൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പം നമ്മുടെ ജീവിതം നമ്മള് മരിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ അതായത് വിയർപ്പും ഇതും കൊണ്ടാണ് കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരരി കിട്ടണമെങ്കില് നമുക്കൊരു പച്ചക്കറി കിട്ടണമെങ്കില് അതൊക്കെ കൃഷി ചെയ്തു ഇതാക്കേണ്ടതാണ് പക്ഷേ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല